നമ്മടെ ഇവിടെ ഏറ്റവും കൂടുതലെന്നു പറഞ്ഞാൽ പിന്നെ കൃഷിയല്ല മത്തൻ കുമ്പളങ്ങ ചേന ചേമ്പ് അങ്ങനെയുള്ളതൊക്കെയുണ്ട് കാച്ചിൽ നമുക്ക് പിന്നെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ കാച്ചിൽ ചേന ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് മത്തനുണ്ട് കുമ്പളങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് പാടവലങ്ങയു ണ്ട് പിന്നെ ഇത് കൈപ്പക്കയുണ്ട് സാധാരണ പച്ചക്കറികൾ പച്ചമുളക് ക്യാബേജ് അതുപോലെത്തന്നെ തക്കാളി പിന്നെ കോളിഫ്ലവർ ബ്രക്കോളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് പിന്നെ വളർത്തുന്നത് ഞങ്ങളിവിടെ ഇവിടെ എനിക്ക് മൂന്നാലഞ്ച് പശുക്കളുണ്ട് വീട്ടിൽ പിന്നെ പോത്തില്ല ആടുണ്ട് കുറച്ച് കോഴികളുണ്ട് പിന്നെ കുറച്ച് താറാവുണ്ട് ഇതൊക്കെത്തന്നെയാണ് നമ്മൾ വളർത്തുന്നത് കാരണം പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കാലികളെ വളർത്തുന്നതുകൊണ്ട് അത് നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഈ ചാണകമൊക്കെ നമ്മളിങ്ങനെ വളമാക്കിയിട്ട് അതിന് ഇട്ടു കൊടുക്കുക അപ്പോൾ നമുക്ക് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല പിന്നെ പാൽ ഉൽപ്പാദനത്തിൽ നിന്നൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഇങ്ങനൊരു ഉള്ളൊരിത് കാരണം നമുക്ക് എന്താ പറയുക ലാഭമാണ് നമ്മുടെ വീട്ടിലെ കൃഷിയും മൃഗങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ലാഭമുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് വളത്തിനായിട്ടായാലും വേറെ പല ആവശ്യത്തിനായിട്ട് നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ ശുദ്ധമായിട്ടുള്ള പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും ഈ പിന്നെ പോത്തിൻ്റെ ചാണകവും പോത്തിൻ്റെ ആടിൻ്റെ ഒക്കെ നമ്മൾക്ക് പോത്തില്ലാത്തതുകൊണ്ട് നമ്മൾ പശുവിൻ്റെ ചാണകമാണ് നമുക്ക് പശുക്കറവയുണ്ട് രണ്ട് കിടാക്കളുണ്ട് ഒരു മുട്ടനുണ്ട് ആടൊരു അഞ്ചാറ് ആടുണ്ട് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണുള്ളത്